പാട്ട് പാടുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പാ പാട്ട് ഒത്തിരി ഇഷ്ടം പാട്ട് ഒത്തിരി ഇഷ്ടമാണ് അപ്പം അത് പാടാൻ ഭയങ്കര ആസ്വദിച്ചു തന്നെയത് പാടാറുണ്ട് പക്ഷെ അതിൻ്റെ സംഗതികളും ടൂണുകളുമൊക്കെ വരുമ്പോൾ ഒച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പതു അതിനിച്ചിരി വിഷമമാണ് അപ്പം എന്നാലും പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം അത് നല്ലയൊരു രീതിയിൽ ചെയ്യാൻ ഒക്കെയെനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ദൈവമെ അപ്പം ആ പാട്ടു വലിയ രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ പോകാനും എടുക്കാനും എനിക്ക് പാട്ടിനോടുള്ള ഇഷ്ടംകൊണ്ടാണ് അപ്പം അതിൻ്റെ സംഗതിയും ട്യൂണും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഒരിച്ചിരി പ്രയാസം തോന്നും പക്ഷെ എങ്കിലും പാട്ടിനോടുള്ള ഇഷ്ടംകൊണ്ട് നല്ലരീതിയിൽ പോകാൻ